മത്സ്യബന്ധനം മത്സ്യബന്ധനം എൻ്റെ അറിവുകൊണ്ട് എനിക്ക് മത്സ്യബന്ധനത്തെക്കുറിച്ച് വലിയ അറിവില്ല എന്നാലും ഞാൻ പറയുകാണ് മത്സ്യബന്ധനം ഒരു നാലഞ്ച് ടൈപ്പുണ്ട് ഒന്ന് ചൂണ്ടയിട്ട് കൈച്ചൂണ്ടയിട്ട് പിടിക്കുന്നത് റോഡിട്ട് പിടിക്കുന്നത് അല്ലാതെ വലവിശി പിടിക്കുന്നത് അതിൻ്റെ കടലിറങ്ങി വലകൾ പ്ലാൻറ് ചെയ്ത് പിടിക്കുന്നത് ഇതിൽ മത്സ്യബന്ധനം ബോട്ടുകളിലായി നടത്തുമ്പോൾ രണ്ട് തരം ബോട്ടുകളുണ്ട് ഒന്ന് വലിയ ബോട്ടും ഒന്ന് ചെറിയ ബോട്ടും ചെറിയ ബോട്ടുകളിൽ അന്നന്നത്തെ ദിവസത്തെ മീനുകൾക്ക് വേണ്ടിയും ചെറിയ മീനുകൾക്ക് വേണ്ടിയും ചാകരകൾക്ക് വേണ്ടിയുമാണ് ആൾക്കാര് പോകുന്നത് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാര് എണ്ണം ഭയങ്കരം കുറവുമായിരിക്കും ഇത് ഒരു ദിവസം രാവിലെ പോയാൽ വൈകുന്നേരം വരികയുമാണ് ചെയ്യുന്നത് ഇവര് കടലിൽ പോകുമ്പോൾ അപകടസാധ്യത കൂടുതലും അതിൻ്റെ പൈസ ലാഭത്തിൻറെ വിഹിതം കിട്ടാനുള്ള ചാൻസ് കുറവുമാണ് ഈ ബോട്ടുടമയോട് അനുസരിച്ചിരിക്കും വലവീശലിൻ്റെ അളവും ചെറിയ ബോട്ടിൽ പോകുന്നവർ കുറച്ചാളുകളുമായിട്ടാണ് പോകുന്നത് വലിയ ബോട്ട് വലിയ ബോട്ടില് ആൾക്കാര് കുറേ ആൾക്കാരുമായി പോവുകയും അത് വലിയൊരു മുതലാളിയുടേതുമായിരിക്കും ഇവർ വിവിധതരം കുറേ ദിവസത്തേക്കാണ് കടലിലേക്ക് പോകുന്നത് മീൻപിടുത്തവും ഇതെല്ലാം കഴിഞ്ഞ് ഇവർ വരുമ്പോഴേക്കും ഒരു ആറേഴ് ദിവസമാകും